അതായത് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ എന്നു വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊതുവെ പറയാം നമുക്ക് നല്ലൊരു വികസനം ഉള്ളൊരു പിന്നെ ഒരു ജില്ല തന്നെയാണ് നമ്മുടെ ജില്ല മറ്റു ജില്ലകളെ അപേഷിച്ച് നോക്കുമ്പം നമുക്ക് നല്ല വികസനവും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നല്ലൊരു നല്ലൊരു ജില്ല തന്നെയാണ് നമ്മുടെ ജില്ല പിന്നെയെന്നു വച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ അതായത് എല്ലാം തികഞ്ഞതായിരിക്കില്ലല്ലോ അപ്പം മെയിനായിട്ടെന്നു വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റോഡിൻ്റെ ഒരു ഇത് ഭയങ്കരമൊരു ബുദ്ധിമുട്ട് തന്നെയാണ് കൂടുതലായിട്ട് ബ്ലോക്ക് കാര്യങ്ങൾ അങ്ങനെ ഉള്ളതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് അനുഭവപ്പെടുന്നൊരു ജില്ലയാണ് നമ്മുടേത് അതുകൊണ്ടുതന്നെ അപ്പം ആ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ പിന്നെ മറ്റേ ഈ ഗവൺമെൻ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ കുറേ ഹെൽപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതത്രയും നല്ലതായിരിക്കും എന്നാണെൻ്റെ ഒരു അഭിപ്രായം കാരണം എന്നു വച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ അവസരങ്ങൾ അവസരങ്ങളൊക്കെ ഒരുപാട് നമുക്ക് അവരെ വിദ്യാഭ്യാസ കാര്യത്തിനാണെങ്കിലും ജോലിയുടെ കാര്യത്തിലാണെങ്കിൽ ഒരുപാട് അവസരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ജില്ല തന്നെയാണ് നമ്മുടെ ജില്ല അപ്പം നമുക്ക് വേണമെങ്കിൽ പറയാം പിന്നെ നമുക്ക് പിന്നെ കുറവുള്ളതെന്നു വച്ചിട്ടുണ്ടെങ്കിൽ പാർപ്പിട ഗ്രാമീണ മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഭൂമി അതായത് ഭൂമി നഷ്ടപ്പെട്ട ഒരുപാട് പേര് അപ്പം അതൊക്ക സർക്കാരും രാഷ്ട്രീയ പാർട്ടികളൊക്കെ കണ്ട് അതൊക്കെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അവർക്കൊരു ഉപകാരമായിരിക്കും